ആ ആന്നല്ലോ നാന്നൂറ് തരാവല്ലോ എത്ര കിലോ വേണം

തരാവല്ലോ തരാവല്ലോ പോത്തെറച്ചി അല്ലേ

ആ തരാവല്ലോ നല്ല രീതീൽ നല്ല ഇറച്ചി തന്നെ ഇവിടെയുണ്ട് എത്ര കിലോ വേണമെങ്കിലും തരാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ലത് നല്ലത് തന്നെ തരാം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി ആ അതിന് കുഴപ്പം അതിന് കുഴപ്പമില്ല തലേ ദിവസമൊന്ന് ഓർമിപ്പിച്ചാൽ മതി നല്ല രീതിയിൽ നല്ല ഇറച്ചി തന്നെ തന്നു വിടാം ഉണ്ടല്ലോ ഉണ്ട് അതിൻ്റെ ഒരു ഇരുന്നൂറ് ആ ആ ആന്നല്ലോ ഞുറുക്കി തരാം അത് തരാം തലേ ദിവസം ഓർമിപ്പിച്ചാൽ മതി രണ്ടും കൂടെ

ആണോ ആ അതന്നെ നല്ല രീതിയിൽ നല്ല ഇറച്ചി തന്നെ നോക്കി തന്നേക്കാം ആ ആ നല്ല ഇറച്ചി തന്നെ

കൃത്യമായിട്ട് എല്ലാം പറഞ്ഞതു പോലെ തന്നെ തൂക്കി വെച്ചേക്കാം ആ ഓക്കെ ഓക്കെ ആ ഓർമിപ്പിച്ചാൽ ഓർമിപ്പിച്ചാൽ മതി ഓക്കെ